ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ആറ് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രണ്ട് ഒൻപത് രണ്ടായിരത്തി രണ്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത്